മലയാളം എഴുതുവാനും വായിക്കുവാനും പ്രയാസമായതിനാൽ ആരും കൂടുതൽ മുന്നോട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാൽ നല്ല ഭാഷയാണ് മലയാളം മറ്റ് ഭാഷകളെക്കഴിഞ്ഞും പെട്ടന്ന് അർത്ഥവത്തായിട്ട് എഴുതുന്ന ഓരോരുത്തരും ഉണ്ട് ഓർക്ക് കൂടുതൽ എഴുതുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്ഥിരമായി ഉണ്ടായിരുന്നാലും നല്ല നല്ല സിനിമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ പുസ്തകങ്ങൾ എഴുതുന്നതും മലയാളത്തിൻ്റെ ഓരോ വരികളും വളരെ അർത്ഥവത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒരു നല്ല ഭാഷയായിട്ട് മുന്നോട്ടു പോകുന്നു എഴുത്തുകാരുടെ ഇടയിലും നല്ല ഒരു ഭാഷയായിട്ട് അത് മലയാളം മാറുന്നുണ്ട് സിനിമ മേഖലകളിലും നല്ല നല്ല ആശയങ്ങളുള്ള സിനിമ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുന്നു പുസ്തകങ്ങളും എഴുതുന്നു നല്ല നല്ല ആശയം വച്ചുള്ള പുസ്തകങ്ങളാണ് എഴുതുന്ന മലയാളം വായിച്ചു പഠിച്ചു പഠിക്കുന്ന പണ്ഡിതന്മാർ എല്ലാം മലയാളത്തിന് നല്ല ആശയം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മലയാള രീതിയിൽ കൂടുതൽ പ്രമോട്ട് ചെയ്യുവാനായിട്ട് മലയാളം തന്നെ സാധിക്കുന്നു കാർഷിക മേഖലയിൽ ഇല്ലായിരുന്നാലും നമ്മൾ മലയാളത്തിൻ്റെ ഓരോ എഡിറ്റേഷനിലും ഫീച്ചറുകളും എല്ലാം നമ്മൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്ന ഓരോ അറിവുകളും മലയാളത്തിൽ നമുക്ക് അച്ചടി വരുന്നുണ്ട് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കാനായിട്ട് മലയാളത്തിൽ നിന്നു നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോ മേഖലകളിലും മേഖലകളിലും നമുക്ക് നമുക്ക് കിട്ടുന്ന പരിജ്ഞാനം മലയാളത്തിൻ്റെതായ ഭാഷയിൽ നമുക്ക് സംസാരിച്ചു എടുക്കുവാനായിട്ട് സാധിക്കും സിനിമയിൽ ആയിരുന്നാലും ഓരോ ആശയങ്ങൾ വച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ അനുഭവ കലകൾ കഥകൾ വച്ചുകൊണ്ട് നമുക്ക് മലയാളം പ്രമോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റ് മേഖലകളിൽ ആയിരുന്നാലും കൃഷി ഇടങ്ങളുണ്ടായിരുന്നാലും പുസ്തകങ്ങളുടെ കാര്യത്തിലും നമുക്ക് നല്ല മലയാള അച്ചടിയിലൂടെ നമുക്ക് മുന്നോട്ട് വായിച്ചു മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് മലയാളഭാഷ ഒരിക്കലും പുറകോട്ട് പോകാതെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കണം സഹായിക്കട്ടെ മലയാളത്തിൻ്റെ ഓരോ വരികളിലും കവിതകളിലും നമുക്ക് കിട്ടുന്ന അറിവുകൾ മുന്നോട്ട് വായിക്കുവാൻ സഹായിക്കുന്നുണ്ട് നാടക മേഖലകളിലും എഴുത്തുകാരുടെ നാടകത്തിൻ്റെ ഓരോ പ്രശസ്തിമായ നാടക രംഗങ്ങൾ അവതരിപ്പിക്കുന്നതും മലയാളത്തിലൂടെ നമുക്ക് മുന്നോട്ട് കാണുവാനായിട്ട് സാധിക്കും സിനിമാ ഫീൽസ് രംഗത്തായാലും അത് തന്നെയാണ് ഓരോ ഓരോ മേഖലകളിലും നമുക്ക് മുന്നോട്ടു പോവാനായിട്ട് സാധിക്കുന്നു സിനിമയുടെ ഓരോ ഭാവവും നമുക്ക് അറിവും പക്വതയും കിട്ടുന്ന ഓരോ ഓരോ നിമിഷവും നമുക്ക് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ടു പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട് മലയാളത്തിൽ ഒരിക്കലും മാറ്റി നിൽക്കാൻ വയ്യാത്ത ഒരു ഒരു മേഖലയായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒരിക്കലും മോശമായ രീതിയിൽ ഉള്ള ഭാഷ അല്ല കൂടുതൽ കരുത്തോടു കൂടി എഴുതുവാനും വായിക്കുവാനും ഉള്ള ഒരു ഭാഷയായിട്ട് നമ്മളെ മലയാളം മാറുകയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും മലയാളം സംസാരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷ ആയതുകൊണ്ട് ആരും അതിലോട്ട് വരുന്നില്ല മുന്നോട്ട് പഠിക്കുവാനും അത് നല്ല ഒരു ഭാഷാ മലയാളം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം മുന്നോട്ടു പോകുന്നതിന് മലയാളത്തിൻ്റെ ഓരോ വരികളിലും അതിന് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു